നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന രണ്ട് കാര്യങ്ങളാണ് നഗരവും ഗ്രാമവും എന്നത് ഗ്രാമങ്ങളിൽ സാദാരണക്കാരായ ജനങ്ങളും നഗരങ്ങളിൽ ഉദ്യോഗസ്ഥരും ആണ് കൂടുതൽ കാണപ്പെടുന്നത് നഗരങ്ങളിൽ വളരെ അധികം ടെക്നൊളജികൾ ഉണ്ട് വളരെ വികസിതമായാ സ്ഥലം എന്ന് പറയുന്നത് നഗരമാണ് നഗരമായിരിക്കും പ്രദാനമായും കേന്ദ്രം എന്ന് പറയുന്നത് ഇപ്പോൾ ഗ്രാമങ്ങളിലാണ് കൂടുതലായും കൃഷികൾ സാധാരണ ജീവിതം നയിക്കുന്ന ജനങ്ങൾ ജീവിക്കുന്നത് നഗരങ്ങളിൽ ഗ്രാമങ്ങളിൽ നിന്നും നഗരങ്ങളിലേക്ക് പല ജനങ്ങളും കുടിയേറുന്നുണ്ട് അതിൻ്റെ പ്രധാന കാരണം വികസനം ആണ് വികസനവും ജനങ്ങളുടെ സമയക്കുറവും ആണ് ജനങ്ങളെ നഗരങ്ങളിലേക്ക് ഗ്രാമങ്ങളിൽ നിന്ന് കുടിയേറാൻ പ്രേരിപ്പിക്കുന്നത് നഗരങ്ങളിൽ കൂടുതൽ ജനങ്ങൾക്ക് ആവശ്യമായ ഘടകം ലഭിക്കുകയും നഗരങ്ങളിൽ ഒരു പ്രത്യേക തരം ജീവിതം നയിക്കാനും ജനങ്ങൾക്ക് സാധിക്കുന്നു